ഞാൻ അയച്ച് തന്ന ലൊക്കേഷനിൽ ചെറിയ മാറ്റമുണ്ട് ഇപ്പോൾ ഞാൻ കഞ്ഞിക്കുഴി നിന്നപ്പോഴാണ് താങ്കൾക്ക് ഫോൺ ചെയ്തത് എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ വരുന്ന വഴിക്ക് എൻ്റെ ഒരു കസിനെ കണ്ടു കസിൻ എന്നെ ആണെങ്കിൽ തള്ളക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ലൊക്കേഷൻ അയയ്ക്കാം ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി അപ്പോൾ കാ നേരെ ഇപ്പം കഞ്ഞിക്കുഴിയിൽ എത്തിയെങ്കിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന് നേരെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ കാണും അടുത്ത് അപ്പോൾ തള്ളക്കാനം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് തള്ളക്കാനത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കുരിശുപള്ളിയുണ്ട് കുരിശുപള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് അപ്പം ഇവിടുന്ന് പിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടേൽ ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം അപ്പം അത് നോക്കി വന്നാൽ മതി പിന്നെ ബുദ്ധിമുട്ടായി കാണുമല്ലോ ഇപ്പം കഞ്ഞിക്കുഴിയിൽ നിന്ന് നേരെ തള്ളക്കാനം ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഞാൻ ലൊക്ക് തള്ളക്കാനത്താണ് നിൽക്കുന്നത്